ഞാൻ അഭിഷേക് ആയിരുന്നു ഞാൻ അഡ്മിഷനെ പറ്റി അറിയാൻ വേണ്ടി ആയിരുന്നു എൽ കെ ജിയിലേക്കും രണ്ടാം ക്ലാസ്സിലേക്കും അപ്പം അതിന്

ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും

ആ ഉണ്ട് എത്രയാണ് എത്രയാണ് വരുന്നത്

ആ ഓക്കേ

ആ എക്സ്ട്രാ ഫീ ഉണ്ടല്ലേ ആ ആ ഓക്കേ ആ ഓക്കേ ആ ഓക്കേ വേറെ ഒന്നുമില്ല നാളെ ക്ലാസ് ഉണ്ടാവുമോ വന്ന് അന്വേഷിക്കാൻ വേണ്ടി ഓക്കേ ആ ശരി ആ ഓക്കേ ആ ഓക്കേ ആ ഓ എന്നാൽ ശരി ഇല്ല ഓക്കേ